ഹലോ മുജീബ് ഇത് ഹിജാസ് ആണ് മനസ്സിലായില്ലേ പിന്നെ ഞ്ച് വിളിക്കുന്നത് ഒരു അർജൻറ്റായിട്ടുള്ള ഒരു കാര്യം അത് പങ്ക് വയ്ക്കാനാണ് ഞാൻ ഈ അടുത്തായിട്ട് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ഇടയിലാണ് എൻ്റെ പാസ്പോർട്ട് മോഷണം നടന്നത് ആകെ ഇടങ്ങേറായി നിൽക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുൻപായിട്ട് അത് പുതുക്കേണ്ട ആവശ്യമുണ്ട് അത്

ഒരു നിലയ്ക്കും എനിക്ക് നാട്ടിലേക്ക് തിരിക്കാൻ പറ്റുകയില്ല ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഞാൻ മെസേജ് അയക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവിൽ

എന്നെ അറിയിക്കണം പിന്നെ